ഞാനൊരു എയര്കണ്ടീഷണറാണ് നമ്മളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് നല്ല പ്രൊഡക്റ്റ് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കണ്ടീഷന് ആണ് നമ്മുടെ വീട്ടില് നമുക്ക് വിലയും വളരെ കുറവായിരുന്നു നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു ഇപ്പം വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി നല്ലരീതിയില് നമുക്ക് ഉപയോഗിക്കാന് പറ്റുന്നുണ്ട് നല്ല കൂളിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എയര് കണ്ടീഷണര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് എല്ലാം കൊണ്ടും കെട്ടോ